ഞാൻ വഞ്ചികളിൽ യാത്ര ചെയ്തിട്ടുണ്ട് എൻ്റെ അനുഭവം പറഞ്ഞാൽ എൻ്റെ അച്ചാച്ചൻ അന്ന് എനിക്ക് വള്ളത്തിൽ പോകാനായിട്ട് അനുവാദം തന്ന് ഞാനത് തുഴഞ്ഞ് വള്ളത്തിൽ പോയപ്പം ഒരു ബോട്ട് വന്ന് അതിൽ നിറച്ചാളുകളായിരുന്നു ആ ബോട്ടിൻ്റെ ആ ഓളത്തിൽ ഞാനങ്ങ് വീഴുകയും വള്ളം മറിയുകയും ചെയ്തു പക്ഷേ എനിക്ക് നീന്തൽ അറിയാവുന്നത് കൊണ്ട് ഞാനതിൽ പിടിച്ച് കയറി കൂടുതൽ സമയം ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടുകയും വള്ളമടുപ്പിച്ച് വീണ്ടും വന്ന് അപ്പോൾ ബോട്ടിലുണ്ടായിരുന്ന എല്ലാവരും എന്നെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാനാ വള്ളവും പിടിച്ച് അരികിലോട്ട് മാറ്റി ഞാനത് വെള്ളം മുഴുവൻ തേകി കളഞ്ഞിട്ട് വീണ്ടും ഇക്കരയ്ക്ക് വന്ന് ഇക്കരയ്ക്ക് വന്നപ്പം അച്ചാച്ചൻ ചോദിച്ചു എന്തുപറ്റി ഞാൻ പറഞ്ഞു വള്ളം മുങ്ങിയതാണ് ആ മോൾക്കൊന്നും പറ്റിയില്ലല്ലോ അങ്ങനെ ഞങ്ങൾ പെട്ടന്ന് ഇക്കരയ്ക്ക് വന്നു ഞാനത് കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും വന്നില്ല കാരണം ഞങ്ങൾ അത്പോലെ വള്ളവും വെള്ളവും ആയിട്ട് കഴിയുന്നതാണ് അത്പോലെ തന്നെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയും യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ മുങ്ങുക വരെ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് വള്ളവും വെള്ളവും എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടും അറിയാവുന്ന ഒരു തൊഴിലാണ് അങ്ങനെ ഞാനും ഒരു ദിവസം വള്ളത്തിൽ പോകുമ്പോൾ തേങ്ങയെല്ലാം താഴെ പോയി തേങ്ങാ എല്ലാം കോരിയിടും അല്ലെങ്കിൽ ഞങ്ങളതിൽ തേങ്ങയെല്ലാം കൂടെ പിടിച്ച് അരികിലോട്ട് കൊണ്ടുവന്ന് പെറുക്കി വള്ളത്തിലിട്ടാണ് ഞങ്ങൾ കരയ്ക്ക് അടുപ്പിക്കുന്നത് അങ്ങനെ വള്ളവും വെള്ളവുമായിട്ട് ഞങ്ങളൊരുപാട് അത് പോലെ വെള്ള പൊക്കമുണ്ടാകും അതിൽ കൂടെയൊക്കെ നീന്തി ഞങ്ങളൊരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ അനുഭവം ഒരുപാട് പറയാനുമുണ്ട് ഞങ്ങളത് കൊണ്ട് വള്ളവും വെള്ളവും എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അത്പോലെ ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ടും ഞങ്ങൾക്കതിൽ എങ്ങനെ കടക്കാം എന്നതും ഞങ്ങൾക്ക് അറിയാവുന്നതാണ് അത്കൊണ്ട് തുഴവഞ്ചികളിൽ ഞങ്ങളെപ്പോഴും യാത്ര ചെയ്യുന്നതുമാണ് അത്പോലെ ഞങ്ങളുടെ മുന്നിൽ കൂടെയാണ് ഹൌസ് ബോട്ടുകൾ പോകുന്നത് ആ ഹൌസ് ബോട്ടുകളിലെ കാഴ്ച്ചകളൊക്കെ ഞങ്ങളന്ന് കൗതുകപൂർവ്വം നോക്കിയിട്ടുണ്ട് അവരെയോ ഹൌസ് ബോട്ടടുപ്പിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുമുണ്ട് ഞങ്ങൾക്ക് പേനയും മറ്റും ഒരുപാട് കാര്യങ്ങളെല്ലാം തന്നിട്ടുമുണ്ട് അങ്ങനെ ഞങ്ങൾക്കൊരുപാട് നല്ലയൊരു അനുഭവവും കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ അടുത്ത് ഒരു വീട്ടിൽ അവർക്ക് ആഹാരം കൊടുക്കുന്നുണ്ട് ആ ആഹാരം അവർ കഴിച്ചു നല്ല ആഹാരമായിട്ട് തോന്നി പിന്നെ പുതിയ പുതിയ ആൾക്കാർ വരുവാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ വഞ്ചികളിലെ കാര്യങ്ങളും അങ്ങനെ ഓരോ കാര്യങ്ങളും അവർക്ക് അന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്കത് മനസ്സിലാകത്തില്ല എങ്കിലും ഞങ്ങൾ തലയാട്ടി കാണിക്കും അപ്പം ഞങ്ങൾക്കൊരു പേന അവർ തരും അങ്ങനെ അവരുടെ കൂടെ എപ്പോഴും കൂടെയൊരു സഹായിക്കാൻ ഒരാൾ കാണും അവരെല്ലാം അതുവഴി ഒരുപാടും അതായത് മൂന്നാറിൻ്റെ തീരത്താണ് ഞങ്ങൾ താമസിക്കുന്നത് തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും പോകാനുള്ള ഒരാറിൻ്റെ തീരത്താണ് അതിനാണ് ആ ആറിൻ്റെ പേര് മൂന്നാറ്റിൻ മുഖം എന്നാണ് ആ ആറിൻ്റെ പേര് പക്ഷേ ഞങ്ങൾ ആ പിന്നെ ആറിൻ്റെ അതിൽ കൂടി തുഴഞ്ഞും അക്കരയിൽ നീന്തിയും പിടിച്ചുമാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് വള്ളം ഇല്ലാത്തപ്പോൾ ഞങ്ങൾ നീന്തി ഇക്കര വന്ന സംഭവവും ഉണ്ട് ഞങ്ങൾ എട്ട് മക്കളെയും എൻ്റെ അച്ചാച്ചനും അമ്മച്ചിയും നന്നായിട്ട് വളർത്തി ഇത്തിരി പട്ടിണിയും പാടും എല്ലാം അനുഭവിച്ചിട്ടുണ്ട് എന്നാലും ഞങ്ങളതിൽ നിന്നെല്ലാം രക്ഷനേടി ഞങ്ങളെ പഠിപ്പിക്കാവുന്നത് വരെ പഠിപ്പിച്ചു അങ്ങനെ ഞങ്ങൾ അത് പോലെ പോയിട്ടും ഉണ്ട് ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ അന്ന് കൊച്ച് വീടായിരുന്നു എന്നാലും ടൂറിസ്റ്റ്കൾ അതുവഴി പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്കവരെ കാണുമ്പോൾ ഞങ്ങൾക്ക് റ്റാറ്റാ തരുകയും ഒക്കെ ചെയ്ത് എൻ്റെ ആങ്ങള ഹൌസ് ബോട്ടിൽ ജോലി ചെയ്യുകയാണ് അങ്ങനെ ഹൌസ് ബോട്ടെന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽ ആയിരക്കണക്കിന് ഹൌസ് ബോട്ടുകളിപ്പം നിലവിലുണ്ട് പക്ഷേ ഇപ്പോൾ വയനാട്ടിലെ സംഭവം വന്നതിൽ പിന്നെ അതും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നത് കാരണം നമ്മുടെ വള്ളം കളിയൊക്കെ മാറ്റിവെച്ചിരിക്കുകയാണ് അത് കൊണ്ട് ഹൌസ് ബോട്ടുകളുടെ പിന്നെ ആ ഒരു നമുക്ക് കിട്ടുന്ന വരുമാനം നമുക്ക് കുറയുന്നുണ്ട് ഹൌസ് ബോട്ട് നമ്മൾക്ക് നല്ലത് തന്നെയാണ് നമ്മുടെ ഗവൺമെൻ്റിന് ഒരുപാട് പിന്നെ കൂടുതൽ പൈസ നമ്മൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെയും അത് നമ്മൾക്ക് ഉപകാരമല്ലാത്തത് കൊണ്ട് കാരണം വെള്ളത്തിൽ ഇത് മലിന ജലമൊക്കെയാവുന്നു അങ്ങനെ ഒരുപാട് മീനുകളെല്ലാം ചത്ത് പൊങ്ങുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ആ ഒരുപാട് നമ്മൾക്ക് അവരെ കൊണ്ട് ആവശ്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗവും കൂടെയാണ് ഒരുപാട് വീടുകളിൽ ഒരുപാട് പിന്നെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ഒരു വരുമാന മാർഗ്ഗവും കൂടിയാണ് ഹൗസ് ബോട്ടെന്ന് പറയുന്നത് അത് കൊണ്ട് ഹൌസ് ബോട്ടിലെ യാത്ര ഞാനിന്ന് വരെ ചെയ്തിട്ടില്ല കാരണം ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് കണ്ടിട്ടുണ്ട് കയറിയിട്ടുണ്ട് അടുപ്പിച്ച് കിടക്കുമ്പോൾ അതിൽ കയറിയിട്ടുണ്ട് അങ്ങനെയുള്ളു